ഏത് ഭാഷയിലാണ് നിങ്ങൾ കൂടുതൽ വാർത്തകൾ കാണുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മലയാളം ഭാഷ കാരണം മലയാളം എൻ്റെ മാതൃഭാഷ ആയ കാരണം കൂടുതലും മലയാളത്തിൽ പിന്നെ വീട്ടിൽ എല്ലാവരും മലയാളത്തിൽ സംസാരിക്കുന്നതുകൊണ്ടും മലയാള കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വാർത്തകൾ കാണുന്നതും മലയാളത്തിലാണ് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഉള്ള ട സമയത്ത് ആണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ ആണ് കൂടുതലും ന്യൂസ് കാണുന്നതെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി കൂടുതൽ വായിക്കാറ് കാരണം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹി ഹിന്ദി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ലാംഗ്വേജിൽ ഉള്ളതാണ് ആ ഒരു ഭാഷയിലുള്ള ഒരു ഫ്ലുവെൻസിയും പിന്നെ ആ ഒരു ഭാഷയിലുള്ള കുറേ കുറേ പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ വാക്ക് വാക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും എന്താണീ ഒരു വാക്കിൻ്റെ അർത്ഥം ഈ ഇങ്ങനത്തെ ഒരു വാക്ക് എവിടെയാണ് ഉപയോഗിക്കുക അത് മാത്രം അല്ല ചില പല മലയാളം ടൈപ്പ് ന്യൂസ് കാണുമ്പോൾ അത് മിക്കതും കേരളം ബേസ്ഡ് ആവും ഇൻറർനാഷണൽ ന്യൂസും നാഷണൽ ന്യൂസും ഉണ്ടെങ്കിലും അത് കൂടുതലും റീജിയണൽ ടൈപ്പ് ന്യൂസ് ആണ് ഞാൻ മലയാളം ന്യൂസ് വയ്ക്കുമ്പമ കാണാറ് പക്ഷേ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ന്യൂസ് വയ്ക്കുമ്പോൾ അത് എപ്പോഴും ബാക്കി ഇൻറർനാഷണലും നാഷണൽ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതുകൊണ്ടുകൂടി കാരണമാണ് ഞാൻ ഇംഗ്ലീഷ് ന്യൂസും ഹിന്ദി ന്യൂസും പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വയ്ക്കുന്ന ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ സി എൻ എൻ ഇഷ്ടമാണ് ആജ് തക് എന്ന് പറഞ്ഞൊരു ഹിന്ദി ചാനൽ ഇഷ്ടമാണ് ഈ ചാനലുകളാണ് ഏറ്റവും കൂടുതൽ വയ്ക്കാറ് പിന്നെ ഈ ഇംഗ്ലീഷും ഹിന്ദി ന്യൂസ് ചാനലും ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല കാരണം ഞാൻ എയ്റ്റ്ത്തിലും നയൻത്തിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് ടീച്ചർ കറണ്ട് അഫേഴ്സ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റുഡൻറ്സിനോടും ഓരോ ദിവസം അഞ്ച് ന്യൂസ് വെച്ചിട്ട് എഴുതിക്കൊണ്ട് വരാൻ പറയും അപ്പോൾ മലയാളം ന്യൂസ് ചാനൽ കണ്ടുകഴിഞ്ഞാൽ എന്തായാലും ഇംഗ്ലീഷിൽ ഹിന്ദി ഹിന്ദിയിലേക്ക് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നുപറയാം അന്നൊക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ചാനൽ ആണ് അതേപോലെ എല്ലാ പ്രാവശ്യവും രാവിലത്തെ മോർണിംഗ് അസംബ്ലി സ്കൂളിൽ പഠിക്കുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ന്യൂസ് ഇങ്ങനെ വായിക്കാൻ കിട്ടും അപ്പം ഏറ്റവും കൂടുതൽ ന്യൂസ് കിട്ടുക ഇംഗ്ലീഷ് ചാനലുകളിലാവും ഒന്നല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ്പേപ്പർ വായിക്കും അതല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ചാനലുകൾ കാണും ചില ദിവസം ഹിന്ദി ന്യൂസ് ആണെങ്കിൽ ഹിന്ദി ന്യൂസ് ചാനലുകൾ കാണും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ കാണും പിന്നെ ഇവിടുത്തെ പ്രാദേശിക കാര്യങ്ങളിൽ ഇവിടെ അടുത്തൊരു എൻ്റെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഒരു ന്യൂസ് ചാനൽ ഒരു തൃശ്ശൂരിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു ചാനൽ ഉണ്ട് ടി സി ബി എന്നാണ് പറയുക ഒരു വിധത്തെ തൃശ്ശൂരിലത്തെ എല്ലാ പ്രാദേശിക കാര്യങ്ങളും അതിനകത്ത് പബ്ലിഷ് ചെയ്യാറാണ് ചെയ്യാറ്